ഏതൊരു യുവാക്കളെയും പോലെ എൻ്റെയും താൽപര്യം പ്പെട്ട ഒന്നാണ് ബൈക്കിംഗ് എന്നുള്ളത് ബൈക്കുകളോട് ഏവർക്കൂടെയും പോലെ കമ്പമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ ഓരോ പുതിയ ബൈക്കിൻ്റെ മോഡലുകൾ മാർക്കറ്റിൽ റിലീസ് ആകുമ്പോഴും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തിരക്കുവാൻ ഞാൻ താൽപര്യപ്പെടാറുണ്ട് അതുപോലെ തന്നെയാണ് ബൈക്ക് റേസും മറ്റും അതും കാണാറുണ്ട് ബൈക്കുകളുടെ കൂട്ടായ്മയിൽ ഒന്നും അംഗമല്ലെങ്കിലും സ്വന്തമായൊരു ബൈക്ക് പഠിക്കണം എന്നുള്ളതും അഥവാ വാങ്ങണം എന്നുള്ളതും ഞാൻ ആഗ്രഹമായി എടുക്കാറുണ്ട് കഴിഞ്ഞ കുറച്ചു നാ നാളുകൾക്കു മുമ്പാണ് ബൈക്ക് ഓട്ടുന്നത് ഞാൻ പഠിച്ചു തുടങ്ങിയത് മുമ്പെല്ലാം എനിക്ക് ഭയമായിരുന്നു ബേക്കിൻ്റെ ഓരോ ചെറിയ ഭാഗങ്ങൾ ഓരോന്നായി സ്വായത്തമാക്കി തുടങ്ങിയപ്പോൾ അതിനുള്ള മറ്റും ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി പിന്നീട് എനിക്ക് വളരെയധികം ഉപകാരപ്ര പ്രദമാകുകയും ചെയ്തു എനിക്ക് ബൈക്കുകളോടുള്ള കമ്പം തുടങ്ങുന്നത് എൻ്റെ കൂട്ടുകാരുടെ അടുത്തു നിന്നാണ് അവരിൽ പലരും പലപ്പോഴായി ബൈക്കുകളോട് പലവിധത്തിലുള്ള കമ്പം കാണിച്ചിരുന്നു ഒരേ ദിവസത്തെ വാർത്താ മാധ്യമങ്ങൾ വരുമ്പോഴും ന്യൂസ് പേപ്പറുകൾ വരുമ്പോഴും അവർ അതിൽ അന്ന് പുതിയൊരു ബൈക്ക് റിലീസ് ചെയ്യുകയും ബന്ധപ്പെട്ടതിൽ വാർത്തകളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റി ചികഞ്ഞന്വേഷിക്കുകയും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പിന്നീട് ക്ലാസ്സുകളിലും മറ്റും അവതരിപ്പിക്കുകയും ചെയ്യും ഇതു പോലെയുള്ള സുഹൃത്തുക്കളിൽ നിന്നാണ് എനിക്ക് ബൈക്കിനോടുള്ള മോഹവും വന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈക്കേതാണെന്നു ചോദിച്ചാൽ ബുള്ളറ്റിൻ്റെ മോഡലാണെന്ന് പറയേണ്ടി വരും അതിൽ പ്രത്യേകിച്ച് എനിക്ക് മോഡലുകൾ വലിയ പരിചയമില്ലാത്തതിനാൽ തന്നെ ഏതു മോഡൽ തിരഞ്ഞടുക്കുകയായാലും വലിയ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ബൈക്കുകൾ നമ്മുടെ യാത്ര വളരെയധികം സുഖകരമായി കിട്ടും ഏത് ഇടുങ്ങിയ വീതിയിലൂടെയാണെന്നുണ്ടെങ്കിലും അതേൽ സഞ്ചരിക്കാൻ ബൈക്ക് ബൈക്കുകൾ നമ്മൾക്ക് നമ്മളെ പ്രാപ്തരാക്കുന്നു ഒരു കാറിന് സഞ്ചരിക്കാനാകാത്തതും ബസ് സഞ്ചരിക്കാനാകാത്തതും മറ്റുള്ള വെ പാതകളിലൂടെയും താണ്ടാൻ നമുക്കിന്ന് ബൈക്ക് വളരെയധികം ഉപകാരപ്രദമാണ്

ബൈക്ക് ഓഫ് റോഡുകളാണ് ബൈക്കുകളുമായിട്ട് ഏറ്റവും കൂടുതൽ ട്രെൻ്റായിട്ടുള്ള സ്ഥലം കൂട്ടുകാരും ഒത്തു ഓഫ് റോഡുകൾ മ മുറിച്ച് കടക്കാനും മറ്റും ഇന്ന് ആളുകളുടെ ഇടയിൽ വളരെയധികം ട്രെൻഡി ആയിട്ടുള്ളൊരു സംഗതിയാണ് അതുപോലെ ഒന്ന് ഞാനും ലക്ഷ്യം വെക്കുന്നുണ്ട് വലിയതല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ചെറിയ ഓഫ് റോഡൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കൈ കഴിയാൻ ഞാനും താല്പര്യപ്പെടുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ബൈക്കുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തെ ഏറെക്കുറേ മാറ്റി മറിച്ചിട്ടുണ്ട് ഏതൊരു ചെറുപ്പക്കാരുടെയും യുവാവിൻ്റെയും മോഹമായി ഇന്ന് ഒരു ബൈക്ക് എന്നുള്ളത്